കൊല്ലം ജില്ലയിലെ പ്രധാന വിളകൾ എന്നുപറഞ്ഞാൽ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ക്യാഷൂ തേങ്ങ അങ്ങനത്തെ പുകയില അങ്ങനത്തെ വിളകളാണ് കൂടുതലായിട്ടും ഇവിടെ കാണാറ് അത് വലിയ ഏക്കർ കണക്ക് വസ്തുകളിലാണ് ഇത് കൃഷി ചെയ്യാറ് പൊതുവെ നോക്കി നടത്താൻ ഒരാൾ അതിന്റെ കൂടെ എപ്പൊഴും ഉണ്ടാവും അങ്ങനത്തെ ആണ് അങ്ങനത്തെ രീതിയിലാണ് അവർ വിളകൾ നടത്താറ് പിന്നെ വിത്തിടുന്നതിനെ പറ്റി പറയുവാണെങ്കിൽ ആദ്യം നിലം എല്ലാം ഉഴുതു മറിച്ച് സെറ്റ് ചെയ്ത് കുമ്മായം ഒക്കെ വെച്ച് ചേർത്ത് സെറ്റ് ചെയ്ത് ഉറുമ്പൊന്നും വന്ന് ഈ വിത്ത് പെറുക്കിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി എല്ലാം ഇട്ട് എന്നിട്ട് അവർ അത് വെള്ളം ഒഴിച്ച് അതിനു ചുറ്റും എപ്പോഴും നടന്ന് അത് നോക്കി കണ്ടും വളർത്താറുണ്ട് പിന്നെ അതിന് ഇലയൊക്കെ വന്നു കഴിയുമ്പോൾ അതിൽ ഈച്ചകളും പുഴു ഒക്കെ വരും അപ്പം അതിനു വേണ്ടി അത് പോകാൻ വേണ്ടി അവർ പുകയില കഷായവും അങ്ങനത്തെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനത്തെയൊക്കെ ചെയ്ത് ഒഴിച്ചാണ് അവർ അതിനെയൊക്കെ ഓടിക്കുന്നത് അങ്ങനെ അതൊക്കെ ചെയ്ത് അവർ ഇത് വളർത്തിയെടുത്ത് വിള വലുതായി കഴിഞ്ഞ് അവരത് ചന്തകളിൽ കൊണ്ട് വിൽക്കാറുണ്ട് വിപണികളുണ്ട് ഇവിടെ ഒരുപാട് വിപണികളുണ്ട് അവിടെ കൊണ്ട് വിൽക്കാറുണ്ട് അല്ലാത്ത ചന്തകളുണ്ട് അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ കൊണ്ടുപോയി അവർ ഈ വിളകൾ വിൽക്കാറുണ്ട് പിന്നെ ഒരുപാട് വിളകൾക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ് ഈ നാട്ടിൽ ഉള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ വിളകൾ കിളിക്കാറുണ്ട് പിന്നെ കൂടുതലായിട്ടും ഇപ്പം ഇവിടുത്തെ കൃഷി റബ്ബർ ആണെന്ന് തോന്നുന്നു റബ്ബർ ആണ് കൂടുതലായിട്ടും എല്ലായിടത്തും ഇപ്പം കണ്ടുവരാറ്